മൃഗങ്ങൾ വളർത്തലില് നമ്മള് നോക്കുകയാണെങ്കില് കർഷകര് ഏറ്റവും കൂടുതല് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെന്നു പറഞ്ഞാല് മൃഗങ്ങൾക്ക് വരുന്ന രോഗങ്ങളും അതുപോലെതന്നെ പിന്നെ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ വില വർധനയും ആണ് അപ്പോള് എൻ്റെ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കില് ഞങ്ങള്ക്ക് ഞങ്ങളെ ആടുകളൊക്കെ ചത്തുപോയത് അല്ലെങ്കില് അസുഖം വന്ന് മരിച്ചുപോയത് ഈ എന്ത്വാണ് ആഹാരത്തില് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അപ്പോള് ഇതുപോലെ വരുന്ന ആഹാരത്തിലൂടെ വരുന്ന രോഗങ്ങളും അതുപോലെ തന്നെ വരുന്ന രോഗങ്ങളുമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നം ഇതായിരുന്നു അപ്പോള് അതിന് നേരിടാനായിട്ട് കുറെ നല്ല രീതിയിലുള്ള ഡോ ഡോക്ടേഴ്സും അതുപോലെത്തന്നെ ആധുനിക സൗകര്യങ്ങളും ഉണ്ടെങ്കില് നമുക്ക് ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അതുപോലെത്തന്നെ നോക്കുവാണെങ്കില് ഞാൻ എൻ്റെ വീട്ടിൽനിന്ന് ഞാൻ മാറി നിൽക്കുവാണെന്നുണ്ടെങ്കില് എൻ്റെ വീട്ടുകാരായിരിക്കും നോക്കുന്നെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിരിക്കും നോക്കുന്നത് അപ്പോള് അതിനൊന്നും ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല